ഞാൻ മേടിച്ചതിൽ ഞാൻ വാങ്ങിയതില് ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് ഫേസ് ക്രീം മേടിച്ചത് ഒരു ഹിമാലയേൻ്റെ ഒരു ഫേസ് പാക്ക് ഞാൻ പരസ്യങ്ങളിലൂടെയും ഫോണിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ കാണാൻ തുടങ്ങി ഓരോ ഫ്രണ്ട്സുകളും ഇങ്ങനെ പറയുന്നുണ്ട് നല്ല റിസൾട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനത് ഓർഡർ ചെയ്യാന്നു വിചാരിച്ചു പിന്നെ ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ ഷോപ്പിലില്ലായിരുന്നു രണ്ട് മൂന്നു ഷോപ്പ് പോയി അവിടെയൊന്നും ഇല്ലായിരുന്നു ലാസ്റ്റ് ഓൺലൈനില് ബുക്കെയ്ത് ഓർഡർ ചെയ്ത് അവര് കൊണ്ടുന്നു തരാണ് ചെയ്തത് അയിൻ്റെ നല്ല മാറ്റവും ഉണ്ടാകും ആഴ്ചയില് രണ്ടു മൂന്നു ദിവസം യൂസെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഫ്രിഡ്ജില് വെച്ച് യൂസെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് ആവശ്യത്തിന് എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒര് ഒന്നര മണിക്കൂറ് തേച്ചു പിടിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അതനുസരിച്ച് ആഴ്ചയിൽ രണ്ടു ദിവസം തന്നെ മുഖത്ത് തേച്ച് നോക്കി നല്ല മാറ്റുണ്ടായിരുന്നു നല്ല റിസൾട്ടുണ്ടായിരുന്നു മുഖം നല്ല നല്ലപോലെ നല്ല വെളുക്കാൻ തുടങ്ങി മുഖത്തുള്ള പാടുകളും അതേപോലെ കുരുക്കളും അങ്ങനെ ഉള്ളതൊക്കെ മാറാൻ തുടങ്ങി പിന്നെ മുഖം നല്ല ബ്രൈറ്റ്നെസ്സായിരുന്നു